എൻ്റെ വീട് കോട്ടയത്താണ് എനിക്ക് മലയാള ഭാഷയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരുപാട് വാക്കുകളുണ്ട് തന്നെ എന്തുവാ എന്തുട്ടാന്നൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം ഇവിടെയെന്ന് വച്ചാൽ എല്ലാവരും തന്നെ ചോദിക്കുന്നതെന്ന് വച്ചാൽ എന്ത് എന്തുവാ എന്താ എന്തെടുക്കാ അതൊരു അച്ചായന്മാരുടെ ഭാഷയാണ് പൊതുവേ അത് പലർക്കും അത് മനസ്സിലാവാറില്ല കാരണം നമ്മുടെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്ന് വച്ചാൽ അതിപ്പം എന്ത് എന്ത് തന്നെ മുകളിൽ സംസാരിക്കില്ലേ അപ്പം അതിൻ്റെ ഒരു മീനിങ്ങ് എന്ന് വച്ചാൽ അത് വേറൊരിടത്ത് അതിൻ്റെ മീനിങ്ങ് വേറെ ആയിരിക്കും അപ്പം നമ്മൾ എന്തുവാന്ന് ചോദിച്ചാൽ അവര് ചിലപ്പം വേറെ ആയിരിക്കും പറയുന്നത് കാരണം നമ്മുടെ നമ്മൾ എന്തു ചോദിച്ചാൽ അവർ പറയും അതിൻ്റെ ആൻസറ് പലേടത്തും ഓരോ ഭാഷയ്ക്കും ഓരോ മീനിംഗാണ് അപ്പം നമ്മൾ സംസാരിക്കുന്നത് ആണേൽ പോലും സ്ലാങ് വച്ച് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അർത്ഥം വച്ച് വ്യത്യാസമുണ്ട് ഇപ്പം എന്തുവാന്ന് ഞാൻ ചോദിച്ചാൽ അവർ ചിലപ്പം എന്തുട്ടാ അപ്പം പലയിടത്തും പല ഭാഷയാ പറയുന്നത് അപ്പം ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് ഭാഷാശൈലികളുണ്ട് അപ്പം എല്ലാം തന്നെ രസകരമാണ് ചിലത് എന്താണ് പല പല അർത്ഥങ്ങൾ വരുന്നതാണപ്പം ആ എല്ലാ വാക്കും പ്രയോഗിക്കുന്ന ഒരു രീതിയെന്ന് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുസരിച്ച് മാറും അപ്പം മലയാള ഭാഷയിൽ എനിക്കൊരുപാട് ശ്രദ്ധേയമായിട്ട് ഇതുപോലെ ഒരുപാട് വാക്കുകൾ തോന്നിയിട്ടുണ്ട് അതെല്ലാം തന്നെ രസകരവുമാണ് അതുപോലെ തന്നെ എല്ലാം ഒരു ഓർമ്മകളുമാണ് നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്